മലയാള ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും രൂപപ്പെട്ട ഭാഷയാണ് മലയാള ഭാഷ പഠിക്കാൻ വളരെ കഷ്ടമുള്ളൊരു ഭാഷയാണ് മാത്രമല്ല അമ്പത്തിയാറ് അക്ഷരമടങ്ങുന്ന വലിയ അമ്പത്തിയാറ് അക്ഷരങ്ങളും മറ്റ് പ്രയോഗങ്ങളും അടങ്ങുന്ന വലിയൊരു ഭാഷ സംഹിതയാണ് മലയാളം അതുകൊണ്ടുതന്നെ മറ്റു ഭാഷകളെ വെച്ച് നോക്കുമ്പോൾ മലയാളം പഠിക്കാൻ വളരെ കഷ്ടമാണ് മാത്രമല്ല മലയാളം പഠിച്ച ഒരാൾക്കും മറ്റു ഭാഷകൾ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നാണ് ഒരു ഒരു എൻ്റെ ഒരു ഒപ്പീനിയൻ അതായത് ഇപ്പം ഇപ്പം നമ്മുടെ അതിഥി തൊഴിലാളികളായാലും അവരുടെ ഭാഷ ആണ് അവരുടെ മാതൃഭാഷ വിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ സ്ഥിര താമസമാക്കിയ പലരുമുണ്ട് അവർക്കായാലും ഈ മാതൃഭാഷ പറയുമ്പോൾ അല്ല നമ്മുടെ മലയാളം പറയുമ്പോൾ വളരെ വളരെ കഷ്ടമാണ് പക്ഷെ അവർക്കിപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ നമ്മൾ മറ്റു നാടുകളിൽ പോകുമ്പോൾ മലയാളം പഠിച്ച ആ ഒരു ആ ആ ഒരു പ്രയത്നം കൊണ്ടുതന്നെ ആ ഒരു അത്രയും പ്രയത്നം മലയാളം പഠിക്കാൻ ചെറുപ്പം തൊട്ടേ കാണിച്ചതുകൊണ്ടു ഇന്ന് മലയാളം നമുക്ക് വളരെ വളരെ സുഖമായി തോന്നും മലയാളം എന്നല്ല മലയാളം പഠിച്ചതുകൊണ്ട് മറ്റു ഭാഷകൾ മറ്റ് നാട്ടിലെ ഭാഷകൾ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മലയാളം പോലെത്തന്നെയാണ് തമിഴ് പക്ഷെ തമിഴ് പഠിക്കാൻ ഇപ്പം തമിഴറിയുന്ന മലയാളികൾ പലരുണ്ടെങ്കിലും മലയാളം അറിയുന്ന തമിഴന്മാർ കുറവാണ് അതുപോലെത്തന്നെയാണ് അതിഥി തൊഴിലാളികൾ അതിഥി തൊഴിലാളികളായാലും പല വർഷം നിന്നാലും മലയാളത്തിൻ്റെ ആ ഒരു സ്പുടത അവർക്ക് കൈവരിക്കാൻ സാധിക്കാറില്ല അവർക്ക് ഇരുപത് വർഷത്തോളം അഥിതി തൊഴിലാളി ആയി ഇവിടെ ജീവിച്ചൊരാൾക്ക് പോലും ഹിന്ദി അദ്ദേഹത്തിന് വല്ല അതിൻ്റെ ഹിന്ദി അദ്ദേഹം മുഴുവൻ മറന്നാലും മലയാളം പഠി മലയാളം അദ്ദേഹം പല കാലങ്ങളോളം സംസാരിച്ചാലും മലയാളം ശരിക്കും എന്നാലും അയാൾക്ക് മലയാളികളുടെ അത്ര സ്പുടതയോടുകൂടി സംസാരിക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല മറ്റ് മറ്റ് ഭാഷകൾ അപ്പോൾ ഇംഗ്ലീഷായാലും ഇരുപത്തിയാറ് അക്ഷരങ്ങളെ ഉള്ളൂ പക്ഷെ മലയാളം എന്നു പറയുന്നത് മുപ്പത്തി അമ്പത്തിയാറ് അക്ഷരമുള്ള എഴുതാൻ താന്നെ പാടുള്ള ഒരു ഇതാണ് എഴുതാൻ എഴുതാൻ തന്നെ കൈ കൈ കൈ കൊണ്ട് അതെഴുതി ശീലിക്കാൻ തന്നെ വളരെ പാടുള്ള ഒരു ഭാഷയാണ് മലയാളം അതുകൊണ്ടുതന്നെ മലയാള മലയാളത്തിലെ എഴുത്തുകളായാലും മറ്റു മറ്റു ഭാഷക്കാരെയും അല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ മറ്റു നാടുകളിൽ പോയാലും മലയാളം അല്ലാതെ മറ്റു നാടുകളിൽ പോയാലും അവരുടെ എഴുത്തുകളെല്ലാം നമുക്ക് കുറച്ചുകൂടി സുഗമമായി തോന്നും എന്നാലും മലയാളത്തിലെ ചില എഴുത്തുകളും ചില വാക്കുകളും ചില പദപ്രയോഗങ്ങളും വളരെ കഷ്ടമാണ് മറ്റു നാട്ടുകാർക്ക് വളരെ കഷ്ടമാണ്